എൻ്റെ പ്രിയ്യപ്പെട്ട ബാല്യകാല സ്മരണ എന്നത് എൻ്റെ എൻ്റെയും എൻ്റെ കസിൻസിൻ്റെ കൂടെയൊക്കെ ഉള്ള ചില വൈകുന്നേരങ്ങളിലും അതുപോലെ സ്കൂളുകളിൽ പോകുന്നതൊക്കെ ആണ് അപ്പോൾ ഞാനും എൻ്റെ അനിയനും പിന്നെ ചേച്ചിയൊക്കെ കൂടെ അതുപോലെ എൻ്റെ കസിൻസൊക്കെ കൂടെ വൈകുന്നേരങ്ങളിൽ അക്ക് കളിക്കുവായിരുന്നു അതുപോലെ ഗോട്ടി കളിക്കുവായിരുന്നു ഇതൊക്കെ നല്ലൊരനുഭവം തന്നെയായിരുന്നു ഇനിയൊരിക്കലും ഈ ഒരു സ്മരണയൊന്നും നമുക്ക് തിരിച്ച് കിട്ടില്ലല്ലോ എന്നാൽ പോലും അത് ഇന്നും ഒരു നല്ലൊരു നല്ലൊരു ഓർമ്മകള് നമ്മളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ സ്കൂളുകളിൽ മഴയ മഴക്കാലങ്ങളിലൊക്കെ സ്കൂളിലേക്ക് പോകുന്നതും കുടചൂടി അതുപോലെ വഴ് സൈഡിലൂടെ വെള്ളോക്കെ ഒഴുകുന്നുണ്ട് അതിലൂടെ തന്നെ നടക്കുന്നതും അതൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്